കളികൾ പല വിധമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെയും പ്രധാനപ്പെട്ട നിമിഷങ്ങളെയും നമുക്ക് ടെൻഷൻ അതുപോലെ സ്ട്രെസ്സ് തുടങ്ങിയവ നമുക്ക് മറി കടക്കാൻ കളികൾ നമ്മളെ വളരെയധികം സഹായിക്കും കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിനും ശരീരത്തിനും ആശ്വാസം ലഭിക്കുകയും ഊർജ്ജം ലഭിക്കുകയും ചെയ്യും നാടുകളിൽ ഇപ്പോൾ പലതരം കളികളാണ് കാണാറുള്ളത് ഒരാൾ ഒറ്റക്കും കൂട്ടായും പല വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് കളികൾ ഇപ്പോൾ പഴയത് പോലെയല്ല കൂടു കൂടുതൽ കൂടുതൽ പുതിയ കളികൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഓരോ കളിലും ഓരോ വിധത്തിലുള്ള സന്തോഷങ്ങൾ ആളുകൾ കണ്ടെത്തുന്നുണ്ട് കളികൾ